നമ്മള് ഞാനിപ്പോൾ നീന്താൻ തുടങ്ങിയിട്ട് ഏകദേശം നീന്തല് പഠിച്ചിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ടാകും പണ്ടൊക്കേന്ന് പറയുമ്പോൾ നീന്തലും ഒക്കെ ഒരു സത്യം പറയുമ്പോൾ ചെറിയ കാലം കൊണ്ട് ഒരു പ്ലസ് ടു പത്താം ക്ലാസ്സൊക്കെ പഠിക്കുന്ന് പറയുമ്പോൾ നീന്തലൊക്കെ ഭയങ്കര ആവേശത്തോട് കൂടി ചെയ്തിരുന്ന ഒരു സംഭവാണ് പിന്ന പിന്നെ നമ്മളീ മടി പിടിച്ചിട്ടും സമയത്തിൻ്റെ പ്രശ്ണങ്ങള് കാരണം കൊണ്ടും എന്താ പറയുക വല്ലപ്പോഴൊക്കേ ആക്കി നീന്തലും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോ ഇപ്പോന്ന് പറയുമ്പോൾ നമ്മളങ്ങനേ അതിന് വേണ്ടി സമയം കണ്ടെത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ അതൊരു നല്ല എക്സൈസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നല്ല ബോഡി നമുക്ക് നല്ല സ്ട്രോങ്ങാവും അത്യാവശ്യം ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ നീന്തലൊക്കെ സ്ഥിരായിട്ട് ചെയുന്ന ആൾക്കാർക്ക് പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മള് സമയം കണ്ടെത്തുന്നില്ലാന്നുള്ള ചില പ്രശ്നങ്ങള് കാരണം കൊണ്ട് നമുക്കതിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് നമുക്കതിന് എന്താ പറയുക ഇപ്പം നമ്മള് പെട്ടന്ന് കുറെ കാലത്തിന് ശേഷം നീന്തുന്ന സമയത്ത് നമ്മടെ സ്റ്റാമിന കമ്മിയാകും നമുക്ക് കൂടുതൽ ദൂരം നീന്താൻ പറ്റില്ല പണ്ട് നീന്തിയേൻ്റെ പകുതി പോലും നീന്താൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വരിക അപ്പോൾ കുറെ കാലം നീന്താണ്ടിരുന്നിട്ട് പെട്ടെന്ന് പോയൊരു സുപ്രഭാതത്തില് വെള്ളത്തിൽ ചാടി നീന്തുമ്പോൾ എന്താ പറയുക പഴയ ഒരു കപ്പാസിറ്റി കിട്ടണന്ന് ഇല്ല എന്ത നമ്മള് എത്രയാണോ നീന്തണെ ചിലപ്പോൾ ചില സമയത്ത് നമുക്കാണെങ്കിൽ നമുക്കതിൻറെ പകുതി പോലും നീന്താൻ പറ്റില്ല ഇപ്പോൾ